ബോഡോ ബംഗാളി തുടങ്ങിയ മറ്റ് ഭാഷകളെ അപേക്ഷിച്ച് മലയാള ഭാഷയാണ് എന്തുകൊണ്ടും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അതിഥി തൊഴിലാളികളായിട്ട് ബംഗാളിന്നൊക്കെ ഒരുപാട് ആൾക്കാരിപ്പോൾ കേരളത്തിലേക്കൊക്കെ എത്തുന്നുണ്ട് അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവര് ഇവിടെ വന്നതിനുശേഷം അവര് മലയാളം എളുപ്പത്തിൽ പഠിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക അവരുടെ ഭാഷ ഒരിക്കലും കേരളത്തിലുള്ളവര് പഠിക്കാൻ വലിയ ഇത് കാണിക്കുന്നില്ല സൊ അപ്പോൾ മലയാള ഭാഷ എത്ര എളുപ്പാണ് പഠിക്കാൻ അതുപോലെത്തന്നെ ഇപ്പൊൾ സംസാരിക്കാനും എല്ലാം തന്നെ പെട്ടെന്ന് എല്ലാർക്കും കഴിയുന്നുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടും ബെറ്ററ് മലയാളം ഭാഷ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മലയാള ഭാഷാന്ന് പറയുമ്പോൾ അവരും ബംഗാളികളുമായിട്ട് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റുവൊന്നുമില്ല പക്ഷേ അവര് നമ്മളുവായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അവർക്ക് മലയാള ഭാഷയാണെളുപ്പം അവരതുപോലെത്തന്നെ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കുന്നുണ്ട് ഇതിനെത്തുടർന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഇതുതന്നെയാണ് ബെറ്ററെന്നും മറ്റു ഭാഷകള് ബോഡോ ബംഗാളി തുടങ്ങിയ ഭാഷകളൊന്നും നമ്മള് മലയാളികള് എളുപ്പത്തിൽ പഠിക്കാനൊന്നും ശ്രമിക്കുന്നൊന്നുമില്ല കാരണം അവർക്ക് മലയാള ഭാഷയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെന്തുകൊണ്ടും ബെറ്ററ് പിന്നെ ഇതുവായിട്ടൊന്നും ബന്ധം വലിയ കാര്യാമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മലയാള ഭാഷയായിട്ട് ബംഗാളിൽ നിന്ന് വന്നവര് എളുപ്പത്തിൽ പഠിക്കുന്നു അത്ര തന്നെ